തീർച്ചയായും നമ്മുടെ പ്രദേശത്ത് കുറെ തടാകങ്ങൾ ഉണ്ട് അപ്പം വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം എടുത്താൽ പൂക്കോട് തടാകം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അവിടെ ബോട്ടിംഗ് ഉണ്ട് മത്സ്യബന്ധനം ഇല്ല മത്സ്യങ്ങൾ അവര് വളർത്തുന്നുണ്ട് മത്സ്യം നമുക്ക് അവിടുന്ന് പിടിക്കാൻ പറ്റില്ല ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ അതേപോലെത്തന്നെ നമ്മുടെ ഇവിടെ ചെറിയ ചെറിയ തടാകം എന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ കുളങ്ങൾ മീ മീൻ വളർത്താൻ വേണ്ടി കുളങ്ങൾ ഉണ്ട് അതേപോലെത്തന്നെ രണ്ട് നമുക്ക് വയനാട്ടിൽ രണ്ട് ഡാമുകളുണ്ട് പടിഞ്ഞാറത്തറ ഡാമും കാരാപ്പുഴ ഡാമും രണ്ട് ഡാമുകൾ ഉണ്ട് അപ്പം വരൾച്ചയില്ല അവിടന്നൊക്കെ നമുക്ക് കുടിവെള്ളം പൈപ്പ് മാർഗ്ഗം ഇപ്പം വെള്ളമില്ലാത്ത കുന്നും പ്രദേശത്തിൽ ഒക്കെ പൈപ്പ് മാർഗ്ഗം ഹൗസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി അങ്ങനെ ഓരോരോ പേരുകളിൽ ഇന്ന സ്ഥലങ്ങളിലേക്ക് പൈപ്പ് മാർഗ്ഗം ഗവൺമെന്റ് പഞ്ചായത്ത് വഴി പിന്നെ എല്ലാവർക്കും വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പം അത് അത്ര ഇല്ല വെള്ളപ്പൊക്കം നമുക്ക് രണ്ട് വർഷം മുമ്പ് പിന്നെ നമുക്ക് പിന്നെ ഇതുണ്ടായിരുന്നല്ലോ എല്ലാ സ്ഥലത്തും വെള്ളം കയറി അപ്പ നമുക്കൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പനമരം പടിഞ്ഞാറത്തറ മാനന്തവാടി ആ ഭാഗത്തായിരുന്നു അല്ലാത്ത ഭാഗങ്ങളിൽ അങ്ങനെ വെള്ളപ്പൊക്കം വന്നിട്ടില്ല വെള്ളത്തിന്റെ ഇത് വന്ന് വലിയ കുഴപ്പമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല വരൾച്ച നമുക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ തൊട്ടിട്ടാണ് പിന്നെയും കുറച്ച് വെള്ളം വറ്റി വരിക എന്നാലും വെള്ളമുണ്ട് ഒന്നെങ്കിൽ നമക്ക് കിണറ്റിൽ നിന്ന് വെള്ളം അല്ലെങ്കിൽ നമുക്ക് പൈപ്പ് മാർഗ്ഗം വരുന്ന വെള്ളം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല